ആ എൻ്റെ പേര് ശ്രുതി എന്നാണ് ആ ഞാൻ എൻ്റെ എ ടി എമ്മിൽ നിന്ന് ഒരു പതിനായിരം രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പിൻ നമ്പർ എല്ലാം അടിച്ച് കൊടുത്തിരുന്നു പക്ഷെ ക്യാഷ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ചെയ്തില്ല ഞാൻ പിൻ നമ്പർ അടിച്ചു പക്ഷെ എനിക്ക് ക്യാഷ് വന്നില്ലായിരുന്നു ആ മെസ്സേജ് വന്നായിരുന്നു വിഡ്രോ ആയിട്ട് ഉണ്ടെന്നും പറഞ്ഞ് ആ ആ നൈൻ എയ്റ്റ് ഫോർ ത്രീ നൈൻ സിക്സ് ഫോർ കരമന ഉള്ള കാനറ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നാണ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്

ആ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആ ഓക്കെ ആ ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒന്ന് പറയാമോ എത്ര ബാലൻസ് ഉണ്ടെന്ന് ആ ഓക്കെ ആ പിന്നെ എനിക്ക് എൻ്റെ ജിപേ ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഞാൻ എൻ്റെ നമ്പറ് പറയാം അപ്പോൾ അത് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാമോ എയ്റ്റ് ഫൈവ് നൈൻ ഫോർ സിക്സ് സെവൻ

അയ്യോ അത് എൻ്റെ പഴയ നമ്പർ ആയിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റാൻ എന്താണ് ചെയ്യുക ആ ഓക്കെ ആ താങ്ക് യു മാം